രാഷ്ട്രീയ സംഘർഷം സൃഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് അത് ഇവിടുത്തെ ടീ വിക്കകത്തുകൂടിയും പേപ്പറിലങ്ങനെ ദിവസേന വായിച്ചു കേൾക്കുന്നുണ്ട് പക്ഷെ അതിലൊക്കെ എത്ര സത്യമുണ്ടെന്നോ ഏതൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല ഇത് ആൾക്കാർ പല പാർട്ടികളിൽ ഉള്ളവരുണ്ട് പല ഇതുണ്ട് ഈ രാജ്യത്ത് പത്തിരുപത്തെട്ട് സ്റ്റേറ്റുണ്ട് അതിൽ ഉള്ളവരെല്ലാം പല രീതിയിലാണ് നടക്കുന്നത് ഓരോരുത്തർ ഓരോ ഭാഷക്കാരും അവരുടെ പ്രത്യേകമായിട്ടുള്ള മതങ്ങളും അതു ഇതുമൊക്കെ ഉണ്ട് ആ മതമൊക്കെ അവരുടെ താല്പര്യത്തിനൊപ്പിച്ച് മുന്നോട്ട് പോട്ടെ അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തില്ലെ ആ ഏത് മതത്തിലാര് വിശ്വസിക്കുന്നോ അവർക്കത് നല്ലതാണ് അവരതിൽക്കൂടി മുന്നോട്ട് പോട്ടെ മതത്തിൽ വിശ്വസിക്കാത്തവർക്ക് ഒന്നും വിശ്വസിക്കാത്തവർക്ക് ഇതൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാം പക്ഷെ വിശ്വസിക്കുന്നവർക്ക് വേറൊരാളിനെപ്പറ്റി ഒരഭിപ്രായവും പറയാൻ ആവകാശമില്ല അത് നമ്മുടെ ശരിയാണെന്ന് നമ്മൾ പറയുമ്പോൾ മറ്റവർ പറയുന്നത് അവരുടേതാണ് ശരിയെന്ന അങ്ങനെ ഓരോരുത്തരും മാറി മാറി പറയും അങ്ങനെ പറഞ്ഞിതുകൊണ്ട് എന്നാ പ്രയോജനം ഇത് കേൾക്കുന്നവർക്ക് തന്നെ ഇത് പിന്നീട് മനസ്സിലാകും ഇതെല്ലാം ഈ പറയുന്നതെല്ലാം വെറും പൊട്ടത്തരമാണെന്നും എല്ലാം മനസ്സിലാവും അങ്ങനെ മറ്റുള്ളവർക്ക് എതിർപ്പുണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത് മതത്തെ ഒന്നും വെച്ചിട്ട് മുതലെടുക്കാനൊന്നും ആരും നോക്കണ്ട മതത്തിൽ ഇഷ്ടമുള്ളവർ പോകട്ടെ അവർ സമ്പാദിക്കുന്നു അല്ലെങ്കിൽ ഇവർ സമ്പാദിക്കുന്നു അവരു മതം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ആരും മതത്തെ കുറ്റം പറഞ്ഞ് വേറൊരു മതത്തിലുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കാനൊന്നും ശ്രമിക്കേണ്ട അതൊന്നും ഇപ്പം മറ്റുള്ളവർക്ക് വഴക്കും അടിയും പിടിയുമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത സാധ്യതകൾ കൂടുതലുണ്ടാകുന്നതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഒഴിവാക്കി മുന്നോട്ട് പോണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ രാഷ്ട്രീയക്കാരെന്ന് വച്ചാൽ എല്ലാ ഇതിലും ഒത്തുചേർന്ന് നിൽക്കും അവർ ഒരു ഇതിൽ നിന്നുകൊണ്ട് അവർക്കുള്ള കുറ്റവും കുറവുകളെല്ലാം വിളിച്ചു പറയുകയും അതിൽ നിന്ന് വെച്ചാൽ അത് കേൾക്കുന്നവർ വേറൊരിടത്ത് ഒരു മീറ്റിങ്ങ് കൂടിയിട്ട് അവരത് അവരുടെ കാര്യങ്ങൾ പറയുകയും അങ്ങനെ പലരും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും ഇങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും വലിയ പ്രയോജനമോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും തലപ്പത്തിരിക്കുന്നവർ കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുകൂടി ഇതൊക്കെ കൊണ്ടുനടക്കും അപ്പം അതൊന്നും നമ്മുടെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ രാഷ്ട്രീയം കൊണ്ടൊന്നും വലിയ ഉയർച്ചയൊന്നും രാഷ്ട്രീയക്കാരെല്ലാം എന്താ പറയുക ഇപ്പോൾ മതത്തെ മുതലെടുക്കാനും മതത്തെ ഒരു കച്ചവടചരക്കായി ഉപയോഗിക്കാനും ഒക്കെ അവർ പരിശ്രമിക്കും അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ നിലനിൽപ്പാണ് നോക്കേണ്ടത് നമുക്കിപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് അതൊന്നും പ്രശ്നമേ അല്ല ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മൾ നോക്കുന്നത് നല്ല രീതിയിൽ ആ അങ്ങനെ പോകുമ്പോൾ തന്നെ അതിന് തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി പോവുകയെന്നുള്ളതാണ് നമ്മുടെ താല്പര്യം ഇങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയെന്നുള്ളതാണ് അപ്പം മതത്തെപ്പറ്റി മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കച്ചവടച്ചരക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ അതിൻ്റെ ഇതിൽക്കൂടി മറ്റുള്ളവരെ വകവരുത്താനും അതിന് കൊലനടത്താനും എന്നു വേണ്ട ആ രീതിയിലൊക്കെ ചെയ്യുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അതിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും നല്ല ഇതായിട്ട് ഓരോന്ന് കാണുവാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള അവസരം നമുക്ക് കിട്ടട്ടെ എന്നു പറയുന്ന നമ്മുടെ രാഷ്ട്രീയക്കാർ എല്ലാവരും പല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ആ ഇതിനും ഒക്കെ നമുക്കിപ്പം നിയന്ത്രിച്ച് കൊണ്ടുപോകാനോ ഒന്നും ആരെക്കൊണ്ടും കഴിയില്ല അപ്പം ഓരോരുത്തർ ഓരോരുത്തർ അഭിപ്രായം പറയുന്നു ആ അഭിപ്രായങ്ങളെയൊക്കെ അഭിപ്രായമായിട്ട് തന്നെ മാത്രം കണ്ട് അതിനെ തള്ളിക്കളയുക അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളു ഓക്കെ എന്നാൽ